എന്റെ അഭിപ്രായത്തിൽ ഒരൂ ആറ് ഏഴ് വയസ്സ് തൊട്ട് തന്നെ യോഗ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ഞാൻ യോഗയായിട്ട് വലിയ ഞാൻ യോഗയൊന്നും ചെയ്തിട്ടില്ല കുറച്ച് ചെറുതായിട്ടൊക്കെ മാത്രമേ ചെയ്തിട്ടുള്ളു പിന്നെ യോഗ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മളെ ശരീരത്തിനും മനസ്സിനും മനസ്സിന് ഒരുപാട് ഗുണങ്ങളുണ്ട് യോഗ കൊണ്ട് പിന്നെ യോഗയെ കുറിച്ച് എനിക്ക് വലുതായിട്ടൊന്നും അറിഞ്ഞുകൂട എങ്കിൽ പോലും ഞാൻ കേട്ടതിൽ വച്ച് യോഗ നമ്മളെ മനസ്സിന്റെ മനസ്സിന് നല്ലോണം ശുദ്ധമാകുന്നു നമ്മളെ ശരീരത്തെ ഒരുപാട് ആശ്വാസം നൽകുന്നുണ്ട് എനിക്ക് യോഗയെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്